ഞാൻ സ്നാപ്പ് ചാറ്റ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്ട്സ്ആപ്പ് അതുപോലെ ഉള്ള ഒരുപാട് ആപ്പുകൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ വാട്ട്സ്ആപ്പ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് നമുക്ക് മറ്റുള്ള ആൾക്കാരുമായി ടെസ്റ്റിലൂടെ അല്ലങ്കിൽ എഴുതി അല്ലങ്കിൽ വിഡിയോ കോളിലൂടെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ആപ്പ് ആണ് വാട്ട്സ്ആപ്പ് പിന്നെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നതും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാര് ഒരുപാട് അവരുടെ റിയലുകൾ ഒക്കെ ഷെയർ ചെയ്യും അത് നമുക്ക് കാണാനും നമുക്കും റീല് ചെയ്തു അതിലേക്ക് പോസ്റ്റ് ചെയ്യാൻ ഒക്കെ പറ്റും അതുപോലെ തന്നെ വേറെ ഒന്ന് ഉണ്ട് സ്നാപ്പ് ചാറ്റ് ഇപ്പോൾ നമ്മള് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അത് ഫോട്ടോ എടുത്ത് അത് എഡിറ്റ് ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കുന്നതാണ് സ്നാപ്പ് ചാറ്റ് പിന്നെ അതുപോലെ നമ്മൾ വേറെ ഒന്നാണ് പിന്നെ ബോട്ടിമ് ബോട്ടിം എന്ന് പറയുമ്പോൾ മറ്റുള്ള കൺട്രികളിൽ ഉള്ള ആൾക്കാരുമായി വിഡിയോ കോൾ ചെയ്യാനും ചാറ്റ് ചെയ്യാൻ ഒക്കെ പറ്റുന്നതാണ് ബോട്ടിം എന്ന് പറയുന്നത് പിന്നെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനും നമുക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ നമുക്ക് എന്താണ് പിന്നെ നമ്മുടെ ഒരു ഒരു നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പിന്നെ അതുപോലെ മറ്റുള്ള ആൾക്കാര് ഷെയർ ചെയ്ത കാര്യങ്ങൾ വായിക്കാനും ഒക്കെ അതുപോലെ പൊതുവായിട്ട് ഉള്ള ഒരു നമ്മുടെ ഈ കേരളത്തിൽ ഒക്കെ നടക്കുന്ന ന്യൂസ് ഒക്കെ അറിയാൻ വേണ്ടിട്ട് ഒക്കെ ഈ ഫേസ്ബുക്ക് യൂസ് ചെയ്യാറുണ്ട്